ഹലോ ഇത് എം എൻ ആർ കുസിൻസാണോ ഇത് എം എൻ ആർ കുസിൻസാണോ റെസ്റ്റൊറൻറ്റാണോ കുറ്റിമുക്ക് ഉള്ളിടത്തെ അതെ ഞാൻ പോലീസ് അക്കാഡമീന്നാണ് വിളിക്ക്ന്നത് എൻ്റെ പേര് ആദിത്യാന്നാണ് എനിക്ക് എനിക്ക് ഇന്ന് ഉച്ചത്തേക്ക് കുറച്ച് ഓർഡേസ് പ്ലേസ് ചെയ്യണമായിരുന്നു അപ്പോൾ ഒന്ന് ചെയ്യാൻ പറ്റില്ലേ എന്ന് അറിയാൻ വേണ്ടിയിട്ടായിരുന്നു ആ ഏയ് റേയ്റ്റും കാര്യങ്ങളും എങ്ങനെയാണ് ആ മീൻസ് ഡെലിവറി ചാർജും കാര്യവും എനിക്ക് ഫ്രീ ഡെലിവറി വേണമായിരുന്നു നമുക്ക് ഇവിടുത്തെ ഒരു ഓഫീസിലേക്ക് വേണ്ടിയിട്ടായിരുന്നു അതെ അതെ ഒര് ഫങ്ഷന് വേണ്ടിയിട്ടായിരുന്നു ഫങ്ഷൻ മീൻസ് ഇവിടൊരു ഓഡിറ്റിന് വേണ്ടി ആൾക്കാര് വരുന്നുണ്ട് കുറച്ച് ഓഫീസർ വരുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടായിരുന്നു ഓക്കെ ഓക്കെ അപ്പോൾ നമുക്ക് കുറച്ച് ഓഡേസ് ഡെലിവറി ചെയ്യണമായിരുന്നു എങ്ങനെയാണ് ഫുഡ് ഫ്രഷൊക്കെ ആകില്ലേ ഇഷ്യൂസൊന്നും ഉണ്ടാവില്ലല്ലോ ഒ ഓക്കെ ഓക്കെ അപ്പോഴേ നമുക്ക് വേണ്ടത് മെയ്നായിട്ട് ഒരു മല മലബാറി ദം ബിരിയാണി വേണം ഒര് പ്ലേറ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളു ഓക്കെ ഒര് പ്ലേറ്റ് മലബാറി ദം ബിരിയാണി വേണം നമുക്ക് പിന്നേ പുട്ട് ഉണ്ടാകുമോ റേറ്റ് എങ്ങനെയാണ് അതിൻ്റെ ഒര് പീസല്ലെ ഒര് കുറ്റ് അപ്പോൾ ഒര് കൂ ഒര് കുറ്റി എന്ന് പറയുമ്പം എത്ര പീസുണ്ടാകും മൂന്ന് പീസ് അല്ലെ അത് ഒരാൾക്ക് അത്യാവശ്യം വയറ് ഓക്കെയാവൂലേ കഴിച്ച് കഴിഞ്ഞാൽ ഫി ഫിൽ ആവില്ലേ ഓക്കെ അപ്പം നമുക്കൊണ്ടല്ലൊ ഒര് മൂന്ന് കുറ്റി പുട്ട് എന്ന് പറയുമ്പോൾ ഒമ്പത് പീസ് പുട്ടിൻ്റെ കഷ്ണം വേണം പിന്നെ അതിന് പറ്റിയിട്ടുള്ള ക കറീസ് ഏതൊക്കെയാണ് ഉള്ളത് കടല ഉണ്ടാകുമോ അതെങ്ങനെയാണ് സെമി ഗ്രേവിയായിട്ടാണോ അതോ എങ്ങനെയാണ് അത് കറി ഓക്കെ ഓക്കെ അപ്പോൾ ഒരു കാര്യം ചെയ്യു ആ ഈ മൂന്ന് കുറ്റി പുട്ടിനുള്ള അത്രയും തന്നെ ക്വാണ്ടിറ്റി ഉള്ള കറി എടുത്തോളു എങ്ങനെ ഒരു മൂന്ന് കടലക്കറി എടുത്തോളു ആ പിന്നെ ഇടിയപ്പം ഉണ്ടാകുമോ ആ അതെങ്ങനെയാണ് സൈസെങ്ങനെയാ അതിന് കൈപത്തി അല്ലെ അതൊരൂ പന്ത്രണ്ട് പീസ് എടുത്തോളു ആ അതിൻ്റെ ആ ഓക്കെ അതിൻ്റെ കറീസ് ഏതൊക്കെ റേഞ്ചിലാണ് വരുന്നത് ഒ ക്കേ

ഓക്കെ ഓക്കെ ആ എന്നാലെ ആ നമുക്ക് ആ നമുക്ക് ഒരു മൂന്ന് വെജ്ജ് കുറുമ എടുത്തോളു

അപ്പ് വേണ്ട വേണ്ട പ്ലേറ്റും കാര്യങ്ങളും കൊടുത്ത് വിടുവോ ഒന്ന് എക്സ്ട്രാ ചാർജ് എന്ന് പറയുമ്പം എത്രയാവും അതിന് മൂന്ന് രൂപ വരുമല്ലെ ആ അതിൻ്റെ മറ്റെ കട്ട്ലറീസും കാര്യങ്ങളും കൂടി വേണം സ്പൂൺ അങ്ങനത്തെ സാധനങ്ങൾ ഒക്കെ ഓക്കെ ഓക്കെ ഏതായാലും മതി ഓക്കെ കുഴപ്പമില്ല കുഴപ്പമില്ല അപ്പം ഈ സാധനങ്ങൾ ഒക്കെ ഒന്ന് ഉച്ചക്കത്തേക്ക് ഒന്ന് എത്തിക്കാവോ അക്കാദമിയിലേക്ക് ഒരു ഒ ഒന്നൊ അതിന്റെ ഉള്ളിൽ എത്തിച്ചാൽ മതി

അതെ ഓക്കെ

ഞ മൂ മൂന്ന് വെജ്ജ് കാ വെജ്ജ് കുറുമ കറി പറഞ്ഞു അതെ അതെ പിന്നെ മറ്റെ കട്ട്ലറീസും പ്ലേറ്റും കൂടി വേണം ഓക്കെ ഓക്കെ അപ്പോൾ നിങ്ങളൊന്ന് ഇവിടെ എത്തുമ്പം എന്നെ ഒന്ന് വിളിച്ചാൽ മതി ഈ നമ്പറിൽ എൻ്റെ പേര് ആദിത്യ എന്നാണ്

അതെ അതെ ഓൺലൈൻ പേയ്മെൻ്റെ ചെയ്യാം ഓക്കെ ഡെലിവറിക്ക് ശേഷം ഓക്കെ താങ്ക്യൂ ഓക്കെ